എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കെറ്റിലാണ് അപ്പം ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ട് റഫർ ചെയ്ത വഴിയാണ് ഈ പ്രോഡക്റ്റ് മേടിച്ചത് അപ്പോൾ അവൻ പറഞ്ഞത് ഇത് കുട്ടികളൊക്കെ ഉള്ള വീട്ടില് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് കാരണം കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് വെള്ളം ചൂടാക്കാൻ ഒക്കെ എളുപ്പമാണ് പിന്നെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഇതൊക്കെ വെള്ളമൊക്കെ ചൂടാക്കാം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് അപ്പം ഞാൻ അങ്ങനെ ഒരു ഇതിലാണ് എടുത്തത് മേടിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് കുറച്ചു നാൾ കഴിഞ്ഞ് ഇതിന് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതായത് ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ പുറമേ ഇതിൻ്റെ ഷേയ് എന്താ പറയുക കേറ്റിലിൻ്റെ പുറത്തോട്ട് ചൂട് സ്പ്രെഡ് ആകുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ഒക്കെ പോയി പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൈ പൊള്ളുകയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ലീക്ക് കാര്യങ്ങളൊക്കെ വന്നു ഇതിനകത്തു നിന്ന് തന്നെ അതായത് വെള്ളമൊക്കെ പുറത്തേക്ക് ലീക്ക് വരാൻ തുടങ്ങി അതായത് വയറൊക്കെ ഷോട്ടായി പെട്ടെന്ന് അങ്ങനെ കുറെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു കാരണം ഈ സാധനം അത്ര നല്ല പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് എന്താ പറയുക നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു മേടിച്ച് നമ്മള് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായത് വയറിൻ്റെയൊക്കെ ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു പിന്നെ ലീക്ക് വന്നു പുറത്തേക്ക് ചൂട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക ഇലക്ട്രിസിറ്റി കറണ്ട് ബില്ല് ഒക്കെ വല്ലാണ്ട് കൂടി അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത്